ബുദ്ധിപരമായി വെല്ലുവിളി നേരിടേണ്ടി വന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അത് ഒരു തമിഴ് പുസ്തകം അതിൻ്റെ പരിഭാഷയിൽ വന്നൊരു പുസ്തകം യുദ്ധം സെയ് എന്ന് തലക്കെട്ടുള്ള ഒരു പുസ്തകം ശ്രീ ചേരൻ അവർകൾ എഴുതിയ ഒരു പുസ്തകം അത് പിന്നീട് സിനിമയായി വന്നു ആ ഒരു പുസ്തകം ആദ്യമായി ഞാൻ വായിക്കുമ്പോൾ ബുദ്ധിപരമായി വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിരുന്നു ഇന്നത്തെ കാലത്ത് ഒരു ഈ ബേസിക്കലി ഈ ഒരു പുസ്തകത്തിൻ്റെ സാരാംശം എന്ന് പറയുന്നത് ഒരു കൊലപാതകവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ കാര്യങ്ങളും ആണ് ഈ കൊലപാതകം ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ചിരുന്ന മെഡിക്കൽ റെപ്രെസൻസ് അല്ലെങ്കിൽ ആ ഒരു കൊലപാതകിയുടെ മോഡസ് ഓഫ് ഓപ്പറാൻഡി അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം ഓഫ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പോലീസിനെ പറ്റിയുള്ള കാര്യങ്ങൾ അതിനെ പറ്റി ഒക്കെ എനിക്ക് അറിവ് കുറവായിരുന്നു അതുകൊണ്ടുതന്നെ ഇത് വായിക്കുമ്പോൾ നമുക്കൊരു ഒരു വ്യക്തത കുറവ് തോന്നിയിരുന്നു അതുകൊണ്ടുതന്നെ ഓരോ വാക്കുകളിങ്ങനെ ഇപ്പോൾ മോഡസ് ഓഫ് ഓപ്പറാ മോഡസ് ഓഫ് ഓപ്പറാൻഡി എന്ന് പറയുന്ന ഒരു വേർഡ് ആദ്യമായി ഞാൻ അത് കാണുന്നതും അതിനെ പറ്റി അറിയുന്നതും ആ ഒരു പുസ്തകത്തിൽ നിന്നാണ് അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഇൻകോസ്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ അതിനെ പറ്റിയൊക്കെ എനിക്ക് ആദ്യത്തെ ഒരു അറിവ് കിട്ടുന്നത് അല്ലെങ്കിൽ എനിക്ക് അത് ഒന്ന് അന്വേഷിച്ചു നോക്കണമെന്നുള്ള ഒരു വെല്ലുവിളി ആദ്യമായി കിട്ടിയ പുസ്തകം അതാണ് കാര്യം ആ പുസ്തകം അത്രത്തോളം ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു പുസ്തകം ആയിരുന്നു ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ ഒരു കൊലപാതകിയുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ടാർഗറ്റ് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യപ്പെടുന്നത് എന്നുള്ള വ്യക്തമായ ഐഡിയ കിട്ടി ഒരു ഡോക്ടർ ഫാമിലിയുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കഥയെ പറ്റിയാണ് യുദ്ധം സെയ് എന്ന് പറയുന്ന പുസ്തകം പ്രതിപാദിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ മെഡിക്കൽ ടേർമ്സിൻ്റെ വളരെ ഒരു നീണ്ട നിര ഈ ഒരു പുസ്തകത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കൊലപാതകിയുടെ മെൻ്റൽ സ്ട്രേ സ്റ്റാറ്റസ് അല്ലെങ്കിൽ മനോനില തെറ്റുന്ന ഒരു അവസ്ഥയെ ഒന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ഒരുപാട് മെഡിക്കൽ ടേർമ്സ് അതിനെ പറ്റിയുള്ള മെഡിസിൻസിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു പാരനോയിയ ആ ഒരു സ്റ്റേജ് അതൊക്കെ വളരെ വ്യക്തമായിട്ട് എനിക്ക് വ്യക്തി വെല്ലുവിളികൾ ഉണ്ടാക്കിയിരുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫോറൻസിക് ഫോറൻസിക് വിദഗ്ധർ അവർ തമ്മിലുള്ള ഒരു കോൺവർസേഷൻ പോലെ ഈ ഒരു പുസ്തകത്തിലുണ്ടായിരുന്നു അതിൽ അവർ ഉപയോഗിക്കുന്ന ചില മെഡിക്കൽ ടേർമ്സ് എനിക്ക് പലപ്പോഴും ക്യാച്ചിങ് ആയിട്ട് തോന്നിയില്ല പിന്നെ ഞാൻ ഒന്നുകൂടെ അത് അന്വേഷിച്ച് കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ യുദ്ധം സെയ് എന്ന് പറയുന്ന പുസ്തകം എൻ്റെ അറിവിൻ്റെ പരിമിതികൾക്ക് മേലിലുള്ള ഒരു പുസ്തകം ആയിരുന്നു അല്ലെങ്കിൽ ഞാൻ വായിച്ചു വന്ന ഒരു ലെവലിന് മുകളിലുള്ള ഒരു പുസ്തകം ആയിരുന്നു അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായിട്ട് എനിക്ക് ചില വെല്ലുവിളികൾ നേരിട്ടു അത് പക്ഷേ ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടിയിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി എടുക്കുകയും ആ വേർഡ് എനിക്കിന്ന് പല സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ആരെങ്കിലും അർത്ഥം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് സോ ഈയൊരു പുസ്തകം എൻ്റെ അറിവിൻ്റെ പരിമിതികളെ ചോദ്യം ചെയ്തിരുന്നു എങ്കിലും ഇപ്പോൾ അതെൻ്റെ ഒരു അസെറ്റ് ആണെന്ന് തന്നെ പറയേണ്ടി വരും താങ്ക്യൂ